ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ എന്ന് പറയുമ്പോൾ കാർബണിന്റെ ഒരു സെറ്റ് ആയിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്ത് കുറേ നാൾ ഞാൻ ഉപയോഗിച്ചിരുന്നു ആ ഫോൺ അപ്പോൾ എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇൻറ്റനെറ്റ് യൂസ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല പിന്നെ ഫോൺ ഞാൻ യൂസ് ചെയ്ത ആദ്യത്തെ ഫോണിൽ തന്നെ ക്യാമറേന്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് അത് എനിക്ക് അതിനോട് താല്പര്യം തോന്നിയ കാരണം തന്നെ അതായിരുന്നു കാരണം ആദ്യമായിട്ട് ഇങ്ങനെ ക്യാമറ ഒക്കെ ഉള്ള ഒരു ഫോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു എന്താണ് പറയുക വലിയ കാര്യമായിരുന്നു അതിനുശേഷം ആണ് ഞാൻ സ്മാർട്ട് ഫോണിലേക്ക് അപ്ഡേറ്റ് ആയത് ഇപ്പം ഞാൻ റിയൽമീന്റെ എക്സ് ടി ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻറ്റർനെറ്റ് വഴി ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് പിന്നെ യൂട്യൂബ് ഗെയിമുകൾ അങ്ങനെയൊക്കെ കളിക്കുന്നതിനൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതെനിക്ക് എന്താണ് പറയുക സ്മാർട്ട് ഫോണിലേക്ക് മാറിയപ്പോൾ ആണ് എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായത് പിന്നെ സ്മാർട്ട് ഫോണുകൾ ആണ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സാധാരണ യൂസ് ചെയ്യുന്നത് കാരണം നെറ്റ്വർക്കിന്റെ ഒക്കെ സ്പീഡ് കിട്ടുന്നതിനൊക്കെ ആയിട്ട് ആണ് നമ്മൾ ഇത് കൂടുതലായിട്ടും ഫോൺ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം പണ്ടത്തെ ഫോണിൽ ഒന്നും നെറ്റിന്റെ സ്പീഡും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഇല്ലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഫോർ ജി സെറ്റ് ഒക്കെ മാറി ഇപ്പോൾ ഫൈവ് ജി സെറ്റ് വരെ ഇറങ്ങിത്തുടങ്ങി അപ്പോൾ അതിനകത്ത് ഒക്കെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നെറ്റ് ഒക്കെ ഭയങ്കര സ്പീഡിൽ കിട്ടും അതുകൊണ്ട് നമുക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാനും കേൾക്കാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പുതിയ സ്മാർട്ട് ഫോണുകളിലേക്കാണ് കൂടുതലും പോകുന്നത് ഞാനും അതുപോലെ ഇപ്പോൾ സ്മാർട്ട് ഫോൺ തന്നെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്